രണ്ട് ലക്ഷത്തി എൺപത്താറാ രണ്ട് ലക്ഷത്തി എൺപത്താറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് എണ്ണൂറ് നാനൂറ് മുന്നൂറ് ഇരുനൂറ്